ബിൻസി ആണോ ആ ഞാനേ ഇടുക്കീന്ന് എനിക്കേ പത്തനംതിട്ട കോട്ടാങ്കം പഞ്ചായത്തിലാണ് വർക്കി ചെയ്യേണ്ടത് ജോലി കിട്ടിയേക്കുന്നത് എനിക്കവിടെ അതിൻ്റെ ഏരിയായിൽ പഞ്ചായത്തിൻ്റെ ഏരിയായിൽ എവിടെയെങ്കിലും ഒരു വീട് റെൻ്റിന് വേണം ആ ഞങ്ങളൊരു അഞ്ച് പേരുണ്ട് അഹ് അതെ ഒരു മി അതെ അതെ അല്ല എത്ര രൂപ റെൻ്റ് ആയിരിക്കും എനിക്ക് രണ്ട് രണ്ട് മുറി വേണം കിച്ചണ് പിന്നെ അറ്റാച്ച്ട് ബാത്ത് റൂമെ അങ്ങനെ സൗകര്യങ്ങൾ ഉള്ള ഒരു വീടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ സൗകര്യങ്ങളാവുമ്പം നിങ്ങടവിടത്തെ റെൻ്റ് എങ്ങനെ ആണ് എന്ന് എനിക്ക് കറക്ട് അറിയത്തില്ലല്ലോ ഞങ്ങളുടെ നാട് പോലുള്ള സ്ഥലം അല്ലാത്തതുകൊണ്ടെ അത് ഇടുക്കീന്ന് പത്തനംതിട്ടയിലേക്ക് വരുമ്പം ഇച്ചിരിയൂടെ ആ വ്യത്യാസങ്ങളൊക്കെ സൗകര്യങ്ങൾ വലിയ കൂടിയ ഏരിയ ആയിരിക്കാം അതാണ് അത് അനുസരിച്ച് അവിടത്തെ റെൻ്റ് അങ്ങനെ ആയിരിക്കുമെന്ന് അന്നേരം എനിക്ക് രണ്ട് മുറിയും ഒരു അറ്റാച്ച്ട് ബാത് റൂമും ഹാളും സിറ്റ് ഔട്ട് ഒക്കെ ഉള്ള അങ്ങനെ സൗകര്യങ്ങളുള്ളൊരു വീടാണ് വേണ്ടത് ആ അതു ശരി വെള്ളത്തിനും കരണ്ടിനും നമ്മളെക്സ്ട്രാ കൊടുക്കേണ്ടി വരുമോ കൊടുക്കേണ്ടി വരും അന്നേരം ടോട്ടലെത്രയാണ് ഏകദേശം ഈ നാല് രൂപ റെൻ്റിൻ്റെ വീടാവുമ്പം ഇതിൻറ്റെം കൂടെ കൂട്ടി ഒരു അഞ്ച് രൂപയിൽ നിൽക്കുവോ അതോ അതിൽ കൂടുതലാവുവോ അഞ്ച് അത് ശരി എന്നാൽ ഞ ഞ ഞ ആ വന്ന് കാണാൻ ഞാൻ ആ ഹ ഞാനെന്നാലേ ഞാൻ ഈ മാസം ഇരുപതാം തീയതി ആണെനിക്ക് ജോയിൻ ചെയ്യേണ്ടുന്നത് ഞാനവിടെ ഒരു പത്തൊൻപതാം തീയതി അല്ലൊരു പതിനേഴാം തീയതിക്ക് കൂടി ഞാൻ വരാം എനിക്ക് വന്നാൽ ഒരു ദിവസത്തേക്ക് നിൽക്കാനുള്ള സൗകര്യത്തിനൊരു സൗകര്യം കിട്ടുവോ അത് വന്ന് കണ്ട് എടുക്കാൻ വേണ്ടിയൊക്കെ ചെയ്യാം അങ്ങനാണേൽ ഞാൻ പതിനേഴിനവിടെ വരാം വന്നിട്ട് വീടൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് ജോയിൻ ചെയ്യേണ്ടത് ഇരുപതിനാണ് അതനുസരിച്ച് ഞാൻ വരാം അഹ് അഹ് അഹ് ശരി ഓ എന്നാൽ ശരി ഓക്കേ ഓക്കേ